എനിക്ക് ചെടികൾ വേ റോസായേ മുല്ലയേ ജമന്തിയെ ബന്ദി ചെടിയേ ഇതെല്ലാം എനിക്ക് ഉണ്ട് താനും ഇവയെല്ലാം വളർത്താൻ എനിക്ക് വളരെ ഇഷ്ടവുമാണ് അതിനൊക്കെ വളങ്ങളും ഒക്കെ ഇട്ട് ഞാൻ തന്നെയാണ് ഇതിനെ പരിപാലിക്കുന്നത് ഇഷ്ടമാണ് പിന്നെ പൂക്കൾ പഴങ്ങളാണെങ്കിലും റംബൂട്ടാനും പേഷൻ ഫ്രൂട്ടും ഇതൊക്കെ വളർത്തണം പച്ചക്കറികളാണെങ്കിലും എല്ലാം വളർത്തുകയാണെങ്കിൽ നമ്മൾക്ക് നല്ല പച്ചക്കറികളൊക്കെ ഉപയോഗിക്കാമല്ലോ വിഷമില്ലാതെ വിഷം ചേർക്കാത്ത പച്ചക്കറികളൊക്കെ ഉപയോഗിക്കാമല്ലോ കഴിക്കുകയോ അതേറ്റവും നല്ലതാണ് ഇതിനൊക്കെ പഴങ്ങളുടെയും എൻ്റെ പച്ചക്കറികളുടെയൊക്കെ വേസ്റ്റുകൾ കൊണ്ട് ഇതൊരു വളമാക്കി തീർക്കാനും നല്ലതാണ് പിന്നെ നമ്മുടെ മണ്ണിനെ ഫലപുഷ്ടി ഉള്ളതാക്കി തീർക്കാൻ ഈ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളിലും എല്ലാം നല്ല ഏറ്റവും നല്ല ഉത്തമമായ രീതിയിൽ തീർന്നിരിക്കുകയാണ് ഈ ലോകത്തിൽ ഹരിത ഭവൻ സമ്പാദ്യ ഭവനിൽ നിന്നും ഇതൊക്കെ നമുക്ക് പാഠമായിട്ടുണ്ടല്ലോ പിന്നെ പൂക്കൾ നല്ല തരം പൂക്കൾ വളർന്നു വളരുകയാണെങ്കിൽ നല്ല സുഗന്ധം നമ്മുടെ പരിസരങ്ങളിലും നമ്മളുടെ വീട്ടിലും ഒക്കെ വളർന്നാൽ വന്നാൽ നമുക്ക് നമ്മുടെ എല്ലാ മനശാന്തിക്കൊക്കെ നല്ല ഉപകാരപ്രദ പ്രദമായിരിക്കുന്നതാണ് ഉപകാരപ്രസ്